മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വളരെ സുപ്രധാനമായ രീതിക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളും അതിൻ്റെ പിന്നിൽ ജീവനമനുഷ്ഠിക്കുന്ന ജീവനക്കാരുമൊക്കെ തന്നെ പൊതു സമൂഹത്തിൻ്റെ അത്രയും നല്ല നില നിൽപ്പിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നിലവിൽ നിന്നിരുന്ന ഒന്നാണ് കൊറോണ എല്ലാ എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്നു ലോകം മുഴുവൻ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു കൊറോണ ആ ഒരു സമയത്തും വാക്സിനേഷൻ എന്നുള്ള കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നീതി പുലർത്തിയിരുന്നത് കേരളം എന്ന സംസ്ഥാനം തന്നെ ആയിരിക്കാം പിന്നെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തുടച്ച് നീക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ എച്ച് ഐ വി പോലുള്ള പ്രശ്നങ്ങളുമുണ്ട് അതിനെയൊക്കെ നേരിടാൻ വളരെ നല്ല രീതിക്കുള്ള ക്ലാസ്സുകളും അതേപോലെ സെഷനുകളും പൊതു സമൂഹത്തിന് എടുത്ത് കൊടുക്കുകയും അതേപോലെ അവരെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി ആരോഗ്യം എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ക്ലാസ്സുകളും അങ്ങനെ അങ്ങനെള്ള കമ്മ്യൂണിറ്റികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യം ആരോഗ്യ മേഖലയിൽ വളരെ അധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡൊണേഷൻ ബ്ലഡ് ഡോണേഷൻ ഗ്രൂപ്പ്കൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അങ്ങനേയുള്ള കമ്മ്യൂണിറ്റികളും വളർന്ന് വരുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം ഇതിലൂടെ തന്നെ കേരളത്തിലെ കേരളത്തെ ഏറ്റവും മികവുറ്റ ഒരു സംസ്ഥാനമാക്കി നമുക്ക് കാണാൻ പറ്റും ഏതൊരു കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത് ആരോഗ്യ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ നിലവാരങ്ങളിലായാലും ഹോസ്പിറ്റലുകളുടെ ആശുപത്രികളുടെ നിലവാരങ്ങളിലായാലും കേരളം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തന്നെ കേരളത്തിലെ പല ആരോഗ്യ പ്രശ്നങ്ങളെയും നേരിടുന്നത് അണ്ടർ സ്റ്റഡീസും വാക്സിനേഷനും പോലെയുള്ള കാര്യങ്ങൾ അത് പോലെയുള്ള പ്രചോദിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ്